ഹലോ എടാ നിനക്ക് കുഞ്ഞുണ്ടായില്ലേ പെങ്കൊച്ചാണെന്നു ഞാനറിഞ്ഞു കൺഗ്രാറ്റ്സ് കേട്ടോടാ അവളോടും പറഞ്ഞേരേ ഓക്കെ എടാ മറ്റേ കുട്ടിയുടെ രജിസ്ട്രേഷൻ കാര്യം നീ പറഞ്ഞുവല്ലോ ജനന രജിസ്ട്രേഷൻ എടാ രജിസ്ട്രേഷനിലെ ആളേ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാനാണെങ്കിൽ അവനെ വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാര്യം പെട്ടെന്ന് ചെയ്തു തരാൻ രജിസ്ട്രേഷൻ വേഗം പൂർത്തിയാക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ നിന്നെ ഹെൽപ്പ് ചെയ്യും ഞാൻ പറഞ്ഞതല്ലേ ഓക്കെ ടാ അപ്പം നീ ടെൻഷനൊന്നും അടിക്കേണ്ട വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ നിനക്കിവിടെ ആരെയും പരിചയം ഇല്ലെന്നൊന്നും വിചാരിക്കേണ്ട ഞാനല്ലേ ഉള്ളത് ഓക്കെ അപ്പോൾ സോ അവർ വേഗം ചെയ്ത് തരും കേട്ടോ അപ്പം അവരെ എന്തെങ്കിലും അപ്ഡേറ്റ് തന്നാൽ ഞാൻ നിനക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ വിവരം ഓക്കെ താങ്ക് യൂ ബൈ ടാ